ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ അഭിമുഖീകരിച്ച വെല്ലുവിളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലും ഞാൻ പല സ്ഥലങ്ങളിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിയിലുള്ളൊരു ആക്ഷേപവും കാര്യങ്ങളൊക്കെ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പല രീതിയിലും നമ്മളെ മാറ്റി നിർത്തിയിട്ടൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഞാൻ ഒരു കെട്ടുപണിക്കാരനാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യേണ്ടി വന്ന പല രീതികളിൽ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതായത് ഒരു വീട് കെട്ടിക്കൊടുക്കാൻ ഉണ്ടായിരുന്നു ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം എല്ലാ പരിപാടികളും അതായത് പണികളൊക്കെ ചെയ്ത് തുടങ്ങിയിരുന്നു ആ അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ആക്കുവാൻ വേണ്ടിയിട്ട് ഒരു മാക്സിമം ഒരു രണ്ട് മാസമാണ് ഞാൻ ടൈം പറഞ്ഞത് പക്ഷെ എനിക്ക് ആ ടൈമിൽ അത് തീർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിന്റെ ഞാൻ അതിൻ്റെ മുതലാളി എല്ലാം വന്നിട്ട് ചീത്ത പറയുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുകയുണ്ടായിരുന്നു പല രീതിയിലും ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പല രീതിയിൽ അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാൻ ഉള്ളത്